ഹലോ ജിനോ ഗുഡ് മോർണിംഗ് ആ നന്നായിട്ടുറങ്ങി വളരെ സുഖമായിരുന്നു വളരെ സുഖമായിരുന്നു എന്ത് ഇല്ല ഇല്ല വളരെ ശാന്തമായിട്ടുള്ള പ്രശ്നങ്ങളോ നല്ല അന്തരീക്ഷവും നല്ല ഉറക്കവും ആയിരുന്നു കുട്ടികളായാലും വൈഫായാലും നന്നായിട്ട് ഉറങ്ങി ആ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണ് ഇന്നു നമ്മള് എന്തിൻ്റെ നമുക്കൊരു എയ്റ്റ് തേർട്ടിക്കു പുറപ്പെട്ടാലോ എയ്റ്റ് തേ ആ ഓക്കെ സാർ ആ സാറേ അത് എന്തേലും അഡ്വഞ്ചറായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ആ ഓക്കേ ട്രക്കിംഗ് ട്രക്കിംഗ് ഉണ്ടല്ലേ അത് നമ്മുടെ ഇൻക്ലൂഡ് വന്നിരിക്കുന്ന അല്ല വേറെ സ്പെഷ്യലായിട്ട് പേയ്മെൻ്റ് ഉണ്ട് അത് അത് എത്രത്തോളം വരും മൂവായിരം രൂപ വരും അല്ലേ

ആണല്ലേ നമ്മളിപ്പോള് ഈ കുട്ടികൾക്ക് പറ്റുന്ന എന്തെങ്കിലും അമ്യൂസ്മെൻ്റ് പാർക്കോ അല്ലെങ്കില് അങ്ങനെ എന്തെങ്കിലും കുട്ടികളുടെ ഉണ്ട് ഉണ്ടല്ലേ ആ ആ അപ്പോള് നാലരയ്ക്കു വരണം അല്ലേ നമ്മള് എപ്പോള് എപ്പോഴത്തേക്കു തിരിച്ചു വരാൻ സാധിക്കും ഇപ്പോള് നമ്മൾ എപ്പോഴത്തേക്കാണു പോകുന്നത് എന്നുവച്ചാല് എത്ര സമയം ആ ആ ആ തിരിച്ച് തിരിച്ചെത്താൻ സാധിക്കുമല്ലേ നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻ എന്തെങ്കിലും അതു നമുക്കു മുൻകരുതലായിട്ട് എന്തെങ്കിലും ആണല്ലേ ആ കൂട്ട് ആണല്ലേ ആണല്ലേ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ഇതുക്കൂട്ടുണ്ടോ സ്വിമ്മിങ് പൂൾ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളോ വിസ്മയ എന്ത് എന്ത് ആ ആ ആണല്ലേ എ എന്താണ് ആണല്ലേ പിള്ളേർക്കു വല്ല ചെറിയ ലഘുഭക്ഷണങ്ങള് നമുക്ക് അവിടുന്ന് ലഭിക്കുമോ അതോ സ്നാക്സ് ഏ നൈറ്റിലാണല്ലേ ആഹാ ആണല്ലേ ഇവിടുത്തെ ഇന്നത്തെ ക്ലൈമെറ്റ് മഴയ്ക്കു സാധ്യത ഉണ്ടോ ഇന്ന് കുറവായിരിക്കും അല്ലേ കുറവാണല്ലേ നമ്മൾ എന്തെങ്കിലും അമ്പ്രല്ലാ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണോ വണ്ടിയിലുണ്ട് ആണല്ലേ അ നമ്മളിപ്പോള് പോകുന്ന ട്രക്കിംഗ് ജീപ്പേലാണോ പോകുന്നത് അതോ നമ്മൾ വന്ന ടൂറിസ്റ്റ് കാറിലാണോ ജീപ്പേലാണല്ലേ ആണല്ലേ നമ്മൾ വന്ന വണ്ടിയില് തന്നെയാണല്ലേ ആ ആഹാ

ഓ എന്നിട്ട് നമ്മളീ ഈ മൂന്നാറെന്നു പറയുന്ന സ്ഥലം അത് അവിടെ അതെന്താണ് അവിടെ നമുക്ക് എന്താണ് കാഴ്ച അവിടെ ആ സ്ഥലത്തിൻ്റ പ്രത്യേകത ആണല്ലേ ആ നമുക്ക് ഫാക്ടറി ഒക്കെ നേരിട്ട് കാണാന് പറ്റുമോ കാണാന് പറ്റും അല്ലേ നമുക്ക് അവിടുന്ന് നേരിട്ട് നമുക്ക് അവരുടെ അവരുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും ആ ഹ ആ ഓ അപ്പോള് ഓക്കെ സാറേ അപ്പോള് ജിനു സാറേ ഓക്കെ അപ്പോള് ഞാനൊന്ന് ഫ്രഷ് അപ് ആയിട്ട് എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേക്കും താഴെ ലോഞ്ചിലേക്കിറങ്ങി വരാം സാറേ ഓക്കെ ആ എയ്റ്റ് എയ്റ്റ് തേർട്ടിക്കു വരാം സർ ഓക്കെ സാർ ഓക്കെ താങ്ക്യൂ